ഹലോ ഗുഡ് മോണിങ് സാർ സാറേ ആ സാറേ ഞാൻ വിളി ക്കാ പോലീസ്സ്റ്റേഷനല്ലേ സാറേ ഞാൻ വിളിക്കുന്നത് ഇവിടെ കൊല്ലം ജില്ലയിൽനിന്ന് മൂവാറ്റുപുഴയിൽനിന്നാണെ അപ്പം ഞാൻ അപ്പം ഞാൻ വിളിച്ചത് സാറേ ഞാൻ ട്രാവെൽ ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ പേഴ്സ് കാണാതെ പോയി പേഴ്സും മൊബൈലും കാണാതെ പോയായിരുന്നു അപ്പം അതിനകത്ത് എൻ്റെ ഒരുപാട് ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ അപ്പം സാറേ ഞാൻ അത് സാറേ ഞാൻ കൊല്ലത്തുനിന്ന് പോവുകയായിരുന്നു ഞാൻ ഒരു കേ സ് ആർ ടി സി ബസ്സിനകത്തായിരുന്നു അപ്പം തെങ്കാശി ഫാസ്റ്റിനായിരുന്നു ബസ്സ് അപ്പം ഒറ്റ ബസ്സ് ആയിരുന്നു ഞാൻ അതിനകത്ത് കയറിയിരുന്നപ്പഴാണ് ഞാൻ കയറുന്ന സമയത്ത് അ അ അത് അതുകൊണ്ടാണ് എനിക്ക് ആ സമയത്ത് ആരാ എടുത്തത് എന്നോ അല്ലെങ്കിൽ എങ്ങനാ പോയത് എന്നോ ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ആ ബസ്സില് ഞാൻ കയറുന്ന സമയത്തായിരുന്നു ബസ്സിൽ കയറി കഴിഞ്ഞ് ഞാനൊന്ന് എൻ്റെ ബാഗ് ഒക്കെ ടിക്കറ്റ് എടുക്കാനായിട്ട് പൈസ എടുക്കാനായിട്ട് പേഴ്സ് നോക്കിയപ്പോഴാണ് പേഴ്സ് കാണുന്നില്ല അപ്പോൾ തന്നെ ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ ചാടി ഇറങ്ങി അവിടെ മൊത്തം ഞാൻ ഒന്ന് തപ്പി എന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ഫോണും ഫോണും പേഴ്സും മിസ്സ് ആയിട്ടുണ്ട് അതിനകത്ത് എൻ്റെ ആധാർ കാർഡ് എ ടി എം കാർഡും എല്ലാ ഉണ്ടായിരുന്നു ഞാനെല്ലാം ഓൾറെഡി ഞാൻ അറിയാവുന്ന ഒരു നമ്പെര് വെച്ച് നാട്ടിൽ വിളിച്ച് അങ്ങനെ ബാങ്ക് വഴി എൻ്റെ എ ടി എം ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ആധാർ അതിനകത്ത് അത്യാവശ്യം മൂവായിരം രൂപയോളം എൻ്റെ പൈസ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് കറക്റ്റ് സംഭവം അറിയത്തില്ല സാറേ എൻ്റെ ബസിനകത്ത് നല്ല തിരക്കായിരുന്നു ഞാൻ ബാഗിനകത്തായിരുന്നു വെച്ചിരുന്നത് പേഴ്സ് അപ്പം പേഴ്സ് എന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ എൻ്റെ ബാഗിൻ്റെ സിബ് തുറന്ന് കിടക്കുകയായിരുന്നു അതുപോലെത്തന്നെ ഫോണ് എങ്ങനെയാ മിസ്സ് ആയത് എനിക്ക് അറിയത്തില്ല ഫോൺ ഞാൻ പോക്കെറ്റിലാണ് വെച്ചിരുന്നത് അപ്പം സാറേ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോവാനാണ് സാധ്യത എനിക്ക് മോഷ്ടിച്ചുകൊണ്ട് പോവാനുള്ള എൻ്റെ ബാഗിൽ അങ്ങനെ തുറന്ന് പോയാൽ തന്നെ പോക്കെറ്റിലേത് പോകാൻ സാധ്യത ഉള്ളതല്ലല്ലോ സാറേ ഡിപ്പോയിൽ ഞാൻ ഇൻഫോം ചെയ്തില്ല സാറേ അപ്പം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സാറ് പറയുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു സാറേ എൻ്റെ സ്മാർട്ട്ഫോണ് ആണ് ആൺട്രോയിഡ് ഫോണ് ആണ് ആ സാറേ ഫോണ് ഒരു മറ്റേ ആൺട്രോയിഡിൻ്റെ പോക്കോ എം റ്റു ആണ് അതിൻ്റെ ബ്ലു കളർ ആണ് അതിനകത്ത് പാസ്വേഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് ലോക്ക് ആണ് ഫോൺ ലോക്ക് ആണ് ഞാൻ ആ നമ്പരിലോട്ട് ഒന്ന് വിളിച്ച് നോക്കിയാരുന്നു വിളിച്ച് നോക്കിയപ്പോൾ സ്വിച്ചോഫ് ആണ് എന്നാണ് കാണിക്കുന്നത് ആ ആണ് സാറേ അതിനകത്ത് എൻ്റെ കയ്യിൽ നിന്നും മിസ്സ് ആവും മിസ്സ് ആവുമ്പോൾ എൻ്റെ ഫോണിൽ നിറച്ച് ഫുൾ ചാർജ് ഉണ്ടായിരുന്നതാണ് ഏകദേശം എമ്പത് ശതമാനത്തോളം ചാർജ് ഉണ്ടായിരുന്നതാണ് ആ അപ്പം എന്നാ ആ അ അ ഓക്കെ സാറേ എല്ലാം ഉണ്ട് സാറെ അതെല്ലാം എൻ്റെ വീട്ടിൽ ഇരിക്കുകയാ സാറേ എനിക്കിപ്പം നാട്ടിലോട്ട് പോവാനുള്ള വണ്ടിക്കൂലി പോലും എൻ്റെ കയ്യിലില്ല കാര്യം എൻ്റെ പേഴ്സ് വരെ പോയി അപ്പം അതിനകത്ത് എൻ്റെ ആധാറും എല്ലാ സാധനവും അതിനകത്താണ് ഓക്കെ സാറെ താങ്ക് യൂ സാറേ ഞാൻ അത് സാറ് പറഞ്ഞപോലെ ചെയ്യാം സാറെ ഓക്കെ